എൻ്റെ മകൻ ഇപ്പോൾ അവൻ പഠിക്കുന്നത് നാലാം ക്ലാസ്സിൽ സ്കൂൾ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലും മന്ദ്രസ വിദ്യാഭ്യാസം രണ്ടാം ക്ലാസ്സിലുമാണ് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അവനെ ഏകദേശം ഏ ഹയർ സ്റ്റഡീസ് അഥവാ ഡിഗ്രി പഠനങ്ങളൊക്കെ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഥവാ ആദ്യം ഞാൻ അവനെ എന്ത് ചെയ്യും എൽ പി സ്കൂളിൽ വളരെ വലിയൊരു ഉന്നത വിജയത്തോടെ ഉന്നത്ത വിജയം നേടി കൊടുത്തിട്ട് പിന്നെ യു പി സ്കൂളിലും അതുപോലെ ഹൈ സ്കൂളിലും എട്ട് ഒൻപത് പത്തിലും പിന്നെ പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് വാങ്ങുന്ന രീതിയിലാണ് എനിക്ക് എനിക്ക് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടൂലും ഫുൾ എ പ്ലസ് വാങ്ങാനാണ് എനിക്ക് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പിന്നെ അവന് ഞാൻ ഏതെങ്കിലും വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നല്ല മറ്റ് ഏതെങ്കിലും യൂണേഴസിറ്റൽ എന്റെ അടുത്തുള്ള യൂണേഴസിറ്റി കാലിക്കറ്റ് യൂണിഴ്സിറ്റി ആയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മറ്റുള്ള ഏതെങ്കിലും ഒരു യൂണേഴസിറ്റയിൽ റെഗ്യുലർ ആയി തന്നെ ഡിഗ്രി ചെയ്യാനും എനിക്ക് താല്പര്യം അവനെ അവനെ അങ്ങനെ ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ റെഗുലർ ആയി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിലൂടെ നമുക്ക് അനുഭവങ്ങളും കൂടുതൽ കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിക്കുക പിന്നെ ആ ഡിഗ്രി ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ ബി എഡ് അതുപോലെ എം എഡ് ഇങ്ങനത്തെ എം എ അങ്ങനെ പി ജി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ടീച്ചിങ് മേഖല മേഖലയിലേക്ക് അവനെ എത്തിക്കാനാണ് പിന്നെ എനിക്ക് ആഗ്രഹിക്കാൻ കാരണം ത കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പഠിച്ച് പഠനം കഴിഞ്ഞൊരു ടീച്ചിങ് മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവനെയും അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ എൻ്റെ പിൻഗാമിയായി ടീച്ചിങ്ങിലേക്ക് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് എൻ്റെ ആഗ്രഹവും താൽപര്യവും